ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചാല് കേട്ടറിവൊക്കെയേ ഉള്ളു വലിയ ജ്ഞാനമില്ല എങ്കിലും ഓരോരുത്തര് വലിയ പ സാ സാമ്പത്തികമായിട്ട് പണമുള്ളവര് അവര് ചേർന്ന് മാർക്കറ്റുകളിൽ പോയി പൈസ ഷെയറിട്ട് ചെയ്യുന്ന ഓരോ ദിവസത്തെയും എറ്റക്കിറച്ചിലനുസരിച്ചവര് അവർക്ക് ലാഭം കിട്ടുന്ന വിപണിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചില സമയത്തവർക്ക് നഷ്ടം വരും ചില സമയത്ത് കണ്ടമാനം വരും അങ്ങനെ നഷ്ടം വരുമ്പോള് പണം പിൻവലിച്ചുകൊണ്ടു പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ എനിക്കതേപ്പറ്റി വലിയ അറിവില്ല പിന്ന ഫങ്ക്ഷൻ കറൻറ്റ് മാർക്കറ്റെന്താണെന്ന് ചോദിച്ചാല് അതേ പറ്റി എനിക്കഭിപ്രായമില്ല ഡിജിറ്റൽ ആപ്പുകൾ ഇന്ത്യയിലെ വ്യാപാരത്തില് മാറ്റം വരുത്തിയതിലതിൽ അപകട സാധ്യത ഉണ്ട് അതുകൊണ്ടാണാല്ലോ അവര് മാറ്റം വരുത്തുന്നത് പലർക്കും ഇങ്ങനെ നഷ്ടങ്ങള് ബിസിനസ്സിലക്കെ വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്